ഗ്യാജസ് ഏജൻസി അല്ലേ ഞാൻ എന്ന ഒരു കാര്യം പറയാനായിട്ടാരുന്നു വിളിച്ചത് നമ്മുടെ ഗ്യാസ് ചെയ്യുമ്പോഴേ എൻറെ വീട് മാറിയായിരുന്നു അപ്പം എൻറെ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ഞാൻ ആ അഡ്രസ്സ് പറഞ്ഞുതരാം അത് അവിടേക്ക് കൊണ്ട് വന്നാൽ മതി കേട്ടോ അഡ്രസ്സ് എഴുതിക്കോളൂ ഞാൻ എന്റെ പേര് ന്ന ജോസഫ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ഏകദേശം മല്ലപ്പള്ളിക്ക് അടുത്താണ് അപ്പം എന്ന വരുമ്പോൾ അവിടെ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ കറക്റ്റ് ആയിട്ട് ന്ന വഴി പറഞ്ഞ് തരാം ഈ എൻറെ നമ്പർ ഉണ്ടല്ലോ അതിൽ ആ നമ്പറിൽ എന്നെ വിളിക്ക് ഞാൻ വഴി പറഞ്ഞ് തരാം